ഫാഷനെന്ന് പറയുമ്പോൾ ഓരോ അത് ഓരോ എന്താണ് സ്റ്റേറ്റ്സിനെ ഡിപ്പെെൻഡെയ്തോണ്ടിരിക്കും അല്ലെങ്കിൽ ഓരോ രാജ്യത്തെ ഡിപ്പെെൻഡെയ്തോണ്ടിരിക്കും ഇപ്പം ഇന്ത്യയുടെ ഫാഷൻ രീതി എന്ന് പറയുമ്പോൾ പണ്ടത്തെേക്കാളും ഇപ്പം കുറെ നമ്മളിപ്പം പണ്ടത്തെ ഇന്ത്യൻ ട്രഡീഷണൽ വെയറിൽ നിന്നും കുറെ വെസ്റ്റേൺ വെയറിലേക്ക് നമ്മൾ മാറി വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മെയിൻ എന്താണ് പറയുന്നത് വെസ്റ്റേൺ കൾച്ചർ ഇൻഫ്ലുവൻസ് തന്നെ ആയിരിക്കും പക്ഷേ എന്ത് വന്നാലും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ ഇപ്പോഴും ഇന്ത്യൻ അല്ലെങ്കിൽ നാടൻ വസ്ത്ര രീതിയോട് വളരെ എനിക്ക് അതാണ് ഭയങ്കര കംഫർട്ടബിളായിട്ട് വളരെ ഇതായിട്ട് തോന്നുന്നത് അപ്പോൾ ഇന്ത്യയുടെ പണ്ടത്തെ പക്ഷേ ഇന്ന് പല എന്താണ് വെസ്റ്റേൺകാരും ഇന്ത്യൻ ഫാഷൻ രീതിയെ ഇപ്പോഴും ഇതാക്കണ ഇന്ത്യൻ ട്രഡീഷണലായിട്ട് എന്താണ് വസ്ത്രങ്ങൾ പല അതായത് ഇന്ത്യയുടെ പ്രത്യേകത പറഞ്ഞ പല എത്രയാണ് ഇരുപത്തി ഒൻപത് സ്റ്റേറ്റ്സുണ്ട് ആ ഇരുപത്തി ഒൻപത് സ്റ്റേറ്റ്സിനും നമ്മൾ പല തരത്തിലുള്ള ഫുഡ് വസ്ത്രം അപ്പം ആ ഒരു ഒരു ആ ഒരു കൾച്ചറ് വേറെ തന്നെയാണ് അപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇപ്പോഴും ഫോളോ അപ്പ് ചെയ്യാനും ആഗ്രഹിക്കുന്ന മോഡേൺ വസ്ത്ര രീതി ഇഷ്ടം തന്നെയാണ് പണ്ടത്തെ സാരി അല്ലെങ്കിൽ എന്താണ് ദുപ്പട്ടാസും അങ്ങനെ ചുരിദാറും അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഇപ്പോഴും ഇടുവാണ്